ചേച്ചി ആ ചേച്ചി ഞാനേയ് ഓണത്തിൻ്റെ അവധിക്കുമുമ്പ് ഒരു ചുരിദാറിൻ്റെ സാധനം തയ്യ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ അതേയ് അതു തയ്ച്ചു കിട്ടുമോയെന്നു അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ഞാൻ അളവുതുണിയും കൂടി വച്ചിരുന്നു അതെ അളവുതുണിയും കൂടി വച്ചിട്ടാണ് തന്നത് ആ അത് കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ വാങ്ങിച്ചിട്ടു പോയത് ആ ആ ചേച്ചി അതെ ആ അതിൻ്റെ കയ്യിൻ്റെ കൈക്കുഴിയും മേലുമൊക്കെ ഭയങ്കര ടൈറ്റ് ആണല്ലോ ആ ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ അളവ് തുണിയും കൂടി വച്ചിട്ടല്ലേ തന്നത് ഇനിയിപ്പോൾ സമയം ഇണ്ടാകുവോ അതിൽ ഇറക്കം കുറയ്ക്കാനുണ്ട് ഷോൾഡർ കയറ്റിയടിക്കാനും ഉണ്ട് ആ ഞാനൊന്ന് ആ നാളെയാണെങ്കിൽ എനിക്ക് പരിപാടിയാണ് ഞാൻ ഓണത്തിൻ്റെ ഒക്കെ മുമ്പ് കൊണ്ടുത്തന്ന തുണിയാണ് ഞാൻ ഇട്ടു നോക്കി അത് ചേച്ചി ആ ഷോൾഡർ കയറ്റിയടിക്കാൻ ഉണ്ട് ആ തൂണീൻ്റെ ഇറക്കം കുറയ്ക്കാനുണ്ടായിരുന്നു

അല്ല എനിക്ക് നാളെ കോളേജിൽ പ്രോഗ്രാമാണ് രാവിലെതന്നെ പരിപാടിയാണ് ചേച്ചിക്ക് ഞാനിപ്പോൾ ഇപ്പോൾ തന്നാൽ നാളത്തേക്ക് റെഡിയാക്കാൻ പറ്റുമോ ഇല്ലായിരിക്കുമല്ലേ അതിൻ്റെ മെറ്റീരിയൽ കുറേ കമ്മിയായിട്ടുമുണ്ട്

ആ ആ ആ ആ ആ

ആ ഞാൻ കുറച്ചു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ മിററൊക്കെ കൊണ്ടുവന്നില്ലായിരുന്നോ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കു കളർ കോഡ് ആയിട്ടു തന്നേക്കുന്നെയായിരുന്നു അത് കോളേജിൽ നിന്ന് അപ്പോൾ നാളെയൊരു തിരുവാതിര പോലത്തെ ഒരു ഫങ്ക്ഷൻ പരിപാടിയുണ്ടായിരുന്നു അവിടെ അതിനുവേണ്ടി ഇടാനായിരുന്നു ആ ഞാൻ അന്ന് കടയിൽ വേറൊരു ചേച്ചികൂടി ഇരിപ്പുണ്ടായിരുന്നില്ലേ ആ ചേച്ചി സെപറേറ്റ് ആയിട്ടെൻ്റെ അളവും എടുത്തിരുന്നു അളവും എടുത്തു പിന്നെ അളവിൻ്റെ തുണിയും ഞാൻ വച്ചു എനിക്കറിയായിരുന്നു ചിലപ്പോൾ തിരക്കാണല്ലോ അളവ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അളവിൻ്റെ തുണിയും കൂടി കൊടുത്തു ആ പക്ഷെ ആ തുണിയും നമ്മുടെ തുണിയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് ആ ആണോ നാളത്തേക്കു ശരിയാവുമായിരിക്കുമല്ലെ ആ ആ ഞാനെന്നാൽ കൊണ്ടുവരട്ടെ ആ ആ ആ നാളത്തേക്ക് ഒന്നു ശരിയാക്കിത്തരണേ ആ ശരി ചേച്ചി